എങ്ങനെയാണ് സാങ്കേതിക വിദ്യയിലെ പുരോഗതിൽ നിങ്ങളുടെ ജീവിതം ആയാസരഹിതമാക്കിയതെന്നാണ് എനിക്ക് എന്നോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം അപ്പോൾ ഇതിനെനിക്ക് തരാനുള്ള മറപടി എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാങ്കേതികവിദ്യയെന്ന് ഉദ്ദേശിക്കുന്നതുതന്നെ ടെക്നോളജിയാണല്ലോ അപ്പോൾ ഈ പണ്ടത്തെ കാലത്ത് ടെക്നോളജിയൊന്നും ഇല്ലാത്തതുകൊണ്ടെുതന്നെ എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാര്യങ്ങളല്ലാം ചെയ്യാൻ പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഇപ്പോൾ പണ്ട് തൂമ്പ കൊണ്ട് കിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ജെ സി ബി കൊണ്ട് മാന്തുകയാണ് അതുപോലെതന്നെയാണ് പല കാര്യങ്ങളും ഫോൺ വന്നു കമ്പ്യൂട്ടറ് വന്നു ഇപ്പോൾ പറഞ്ഞ ജെ സി ബി മെഷീൻ ഇങ്ങനെ ഉപകരണങ്ങൾ എന്നു വെച്ചാൽ പണി ചെയ്യാനുള്ള ഉപകരണങ്ങൾ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് അത് ഇപ്പോഴത്തെ കാലത്തെ നാടൻ തൊഴിലാളികൾക്കാണെങ്കിലും ഓഫീസ് ജീവനക്കാർക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഉപകാരപ്രദമാണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റെന്നു പറയുന്നൊരു സാങ്കേതിക വിദ്യയാണ് അതിൻ്റെ സഹായമില്ലാതെ ഇപ്പോൾ ഒരു ഒരാൾക്കാരും ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ് കാരണം നമുക്കിപ്പോഴൊന്ന് എന്തെങ്കിലും ഒരു സാധനം ഫോണിൽ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് വേണം ഒന്ന് കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് വേണം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നതുതന്നെ ഇൻ്റർനെറ്റ് വച്ചുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കിപ്പോൾ നെറ്റ് ഉപയോഗിക്കാതെ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ടുതന്നെ എല്ലാ വീടുകളിലും ഈ പറഞ്ഞതുപോലെ വൈഫൈയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പണ്ടത്തെക്കാലത്ത് ഇൻ്റർനെറ്റൊ കാര്യങ്ങളൊന്നുമില്ല അങ്ങോട്ടുമിങ്ങോട്ടും സംസാരിക്കുന്നതെല്ലാം ഒന്നുകിൽ ഈ ലാൻ്റ് ഫോൺ വഴിയോ അല്ലെങ്കിൽ മറ്റേ നമ്മളെ ലെറ്റർ എഴുതിയോ അങ്ങനെയൊക്കെ കാര്യങ്ങളായിരുന്നു പണ്ടൊക്കെ ഈ ദുബായ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയുണ്ടായിരുന്നവർ കോണ്ടാക്ട് ചെയ്യാൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ലെറ്റർ ഏഴുതുക കത്ത് എഴുതുക കത്തയച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെക്കാലത്ത് ഒരൊറ്റ ഒറ്റ ക്ലിക്കിൽ നമ്മുക്കവരെ മുമ്പിൽ കാണാം അങ്ങനത്തെ സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ ലോകത്തായിക്കഴിഞ്ഞു പിന്നെ ഈ പറഞ്ഞതുപോലെ വാഹനങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും പണ്ടൊക്കെ ആൾക്കാർ കാൽനടയായിട്ട് പോയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിലിപ്പോൾ എല്ലാവർക്കും വണ്ടികളായി പിന്നേയും കുറച്ചും കൂടിയും സാമ്പത്തികായി പിന്നോട്ട് നിൽക്കുന്ന ആളുകളാണ് വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ എങ്കിൽപ്പോലും അവർ ബസ്സ് കാര്യങ്ങളെല്ലാം വിളിച്ച് ബസ്സോ ഓട്ടോറിക്ഷയോ അങ്ങനത്തെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് അവർ അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും അവർക്കതില്ലാത്തത് എന്നു വെച്ചാൽ സാങ്കേതിക സംവിധാനം അവർക്കിപ്പോഴും എത്താത്തത് ഭയങ്കരമൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ നമ്മുടെ വിദ്യാർത്ഥികൾക്കായാലും വിദ്യാർത്ഥികളിൽ നിന്ന് സാങ്കേതികവിദ്യ ഭയങ്കര ഫലപ്രദാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്നുതന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട് ഓഫീസിലെ ഭാരങ്ങളാണെങ്കിലും എല്ലാം പെട്ടന്നുതന്നെ ചെയ്തു തീർക്കാം സ്കൂളിലെ പ്രൊജക്റ്റാണെങ്കിലും കോളേജിലെ അസൈൻമെൻ്റാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടന്നുതന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട് അത് സാങ്കേതിക വിദ്യ വിദ്യയയുടെ ഒരു വലിയൊരു വലിയൊരു നല്ലൊരു കാര്യമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള കാര്യങ്ങൾ പിന്നെ ഉപകരണങ്ങളാണ് മെഷിനറീസാണ് മറ്റൊരു സാധനം മെഷിനറീസിനെപ്പറ്റി പറയുമ്പോൾ പണ്ടൊക്കെ ആളുകൾക്ക് കയ്യും കാലും തൂമ്പയും അതൊക്കെ വെച്ച് പണിയണമായിരുന്നെങ്കിൽ ഇന്നപ്പോൾ എല്ലാം നമുക്ക് ഉപകരണങ്ങൾ വഴി ചെയ്യാം നമ്മുടെ കൊണ്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിലായി കഴിഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ അതെല്ലാം വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ എല്ലാ ആളുകളിലേക്കും ഇങ്ങനത്തെ സംവിധാനങ്ങളെത്തിക്കാൻ നമ്മുടെ സർക്കാരിനും ഉന്നത തസ്തികകളിൽ ഇരിക്കുന്ന ആളുകൾക്കും സാധിക്കട്ടെയെന്നാണ് എനിക്ക് പറയാനുള്ളത്